ഇന്ത്യയുടെ ചരിത്രം ഒരു പ്രസിദ്ധമായ സാമ്രാജ്യത്തിൻ്റെ ചരിത്രമാണ് പല ലോക സാമ്രാജ്യങ്ങളോടും ഏറ്റുമുട്ടിയ വളരെ ശക്തമായ ഒരു സാമ്രാജ്യത്തിൻ്റെ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് പല പേരിലും ഇ ഇന്ത്യയിൽ സാമ്രാജ്യങ്ങളുണ്ടായിട്ടുണ്ട് മുസ്ലിം സാമ്രാജ്യങ്ങളും ഹിന്ദു സാമ്രാജ്യങ്ങളും അടക്കം പലതരം സാമ്രാജ്യങ്ങൾ ചോളസാമ്രാജ്യം മൗര്യസാമ്രാജ്യം അങ്ങനെ പല രാജകുടുംബങ്ങളും ഇന്ത്യയിലൂടെ ചരിത്രത്തിലൂടെ കടന്നുപോയി ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം തുടങ്ങുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിനു ശേഷമാണ് ആയിരത്തി അറുന്നൂറുകളിൽ ആണ് ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ തുടക്കം ഉണ്ടാവുന്നത് ഈയൊരു സംഭവത്തിനുശേഷമാണ് ഇന്ത്യയുടെ രേഖപ്പെടുത്തപ്പെട്ട കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിനുശേഷം ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ നാഴികക്കല്ലായ സ്വാതന്ത്ര്യ സമര നീക്കങ്ങളുണ്ടാവുകയും അതു പിന്നെ ഇന്ത്യയുടെ പിന്നീടുള്ള ചരിത്രത്തില് വലിയ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയൊരു വലിയൊരു എടുത്തുനിൽക്കുന്ന സവിശേഷത തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് അതായത് ബ്രിട്ടൻ എന്നുള്ള വലിയ അതിശക്തമായ ഒരു സാമ്രാജ്യത്വ ശക്തിയെ വളരെ നേരത്തെ തന്നെ അതിൻ്റെ ഇന്ത്യയുടെ തീരങ്ങളിൽ നിന്നും ഓടിച്ച ഒരു വളരെ പ്രകാശപൂരിതമായ ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇന്ത്യയെ ഇപ്പോഴും പല ലോകരാജ്യങ്ങൾക്കിടയിലും വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും വില കൽപ്പിക്കപ്പെടുന്നതുമായ ഒരു രാജ്യമായി ഇന്ത്യ എപ്പോഴും നിലനിൽക്കുന്നത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി പറയുകയാണെങ്കില് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു പേരാണ് മഹാത്മാ ഗാന്ധിയുടേത് അഹിംസ ഉയർത്തിപ്പടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ നീക്കങ്ങളും സത്യഗ്രഹങ്ങളുമാണ് ഇന്ത്യയുടെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്കു നയിച്ചത് പലരും അക്രമപരമായ നീക്കങ്ങളോ നിർദ്ദേശിച്ചെങ്കിലും മഹാത്മാ ഗാന്ധി തൻ്റെ അഹിംസയിലുറച്ചുനിൽക്കുകയും അതിലൂടെ തന്നെ തൻ്റെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്തത് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും എപ്പോഴും മാതൃകയാണ് മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകളില് എടുത്തുപറയേണ്ടതാണ് ജവഹർലാൽ നെഹ്റു അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്ര ബോസ് അതുപോലെ തന്നെ ഇപ്പോള് അതുപോലെ തന്നെ മറ്റു പേരുകളും ഒരുപാട് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യത്തിൽ നമ്മള് ഒരിക്കലും മറന്നുപോകാൻ പാടില്ല